ഹലോ ഹലോ മാഡം ഹലോ മാഡം ഹലോ ആ ഹലോ മാഡം ഹലോ ഹലോ കേൾക്കാമോ മാഡം ഹലോ ഹലോ മാഡം ഹലോ ഞാൻ ഇന്ന് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തായിരുന്നു ആ ഫ്ലൈറ്റ് എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കാരണം എനിക്ക് ഫ്ലൈറ്റ് ഡിലെ ആയിപ്പോയി അപ്പം ഞാന് പേയ്മെൻ്റ മൊത്തം അടച്ചായിരുന്നു അപ്പം എനിക്ക് എൻ്റെ ടിക്കറ്റ് അടുത്ത നെക്സ്റ്റ് ബാംഗ്ലൂർ ഫ്ലൈറ്റ് എപ്പോഴാണ് എന്നൊന്ന് പറയാമോ എൻ്റെ അങ്ങട്ടേക്കും എനിക്കുള്ള ടിക്കറ്റ് ഒന്ന് ചാർട്ട് ചെയ്തു തരാൻ പറ്റുമോ മാഡം ഞാൻ വരാതിരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്ക് എൻ്റെ വണ്ടി ഇടയ്ക്ക് വച്ചൊന്ന് ബ്രേക്ഡൗൺ ആയിപ്പോയി ട്രാഫിക്കിലൊക്കെ വച്ചു ട്രാഫിക് ഭയങ്കരായിട്ട് തായിരുന്നു പിന്നെ എൻ്റെ വണ്ടിക്ക് കുറച്ചു എന്താണ് കുറച്ചു മിസ്റ്റേക്കും വന്നു അതുകൊണ്ടാണ് അങ്ങനെ അല്ല അങ്ങനെ അല്ല മാം അങ്ങനെ അല്ല മാം ഞാൻ ആ ടിക്കറ്റ് പൈസ അടച്ചതായിരുന്നല്ലോ ഫുൾ ടിക്കറ്റ് ക്യാഷ് അടച്ചിട്ട് എടുത്ത ടിക്കറ്റായിരുന്നല്ലോ അപ്പം എനിക്ക് ഇനി ഇപ്പം അടുത്ത നെക്സ്റ്റ് ബാംഗ്ലൂർ ഫ്ലൈറ്റ് എപ്പോഴാണ് എന്നൊന്ന് പറയാമോ അത് അനുസരിച്ചു എനിക്ക് ഒന്ന് സെവൻ തേർട്ടി എന്നു പറയുമ്പോൾ അയ്യോ മാഡം എനിക്ക് ഇന്ന് വൈകിട്ട് അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുമായിരുന്നു വേറെ ഫ്ലൈറ്റുകൾ ഉണ്ടോ എന്നൊന്ന് നോക്കാമോ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഫ്ലൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു തരാൻ ചാർട്ട് ചെയ്തു തരാൻ പറ്റുമോ അല്ല മാം ഒന്ന് നോക്കാം മാമൊന്ന് നോക്കാമോ വേറെ ഏതെങ്കിലും ഇൻഡിഗോയുടെ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഫ്ലൈറ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കാമോ ചാർട്ട് ലിസ്റ്റിൽ ഒന്നു നോക്കാമോ അല്ല അഡിഷൽ പേയ്മെൻ്റ് ആയിട്ട് എത്ര വേണ്ടി വരും മാം ഇത് ട്രാഫിക് ജാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതുപോലെ വണ്ടി ബ്രെക്ഡൗൺ എന്നൊക്കെ പറയുമ്പം നമ്മൾ അൺഒഫിഷ്യൽ ആയിട്ട് അൺഎസ്പെക്ടഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ അപ്പം ആ അപ്പം അങ്ങനെയുള്ള കേസുകളിൽ അപ്പം അങ്ങനെ ഒരാൾക്ക് നമ്മൾ ടിക്കറ്റ് ഫുൾ പേ നമ്മൾ ക്യാഷ് ഫുൾ പേ ചെയ്തിട്ടാണല്ലോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ആ അപ്പം അതിൻ്റെകത്ത് നിങ്ങൾ കമ്പനി പിന്നെ അപ്പം ഇങ്ങനെ ഒരാൾക്ക് ഒരു മ്മ്

ഓ അത് ഇച്ചിരി കൂടുതൽ അല്ലേ മാഡം ഇച്ചിരിയൊന്ന് കുറച്ചു തരുമോ റെയിറ്റ് ഇത് ഇച്ചിരി കൂടുതൽ അല്ലേ ആന്നെ ഇന്ന് തന്നെ കാരണം എയർപോട്ടിൻ്റെ ലോ അങ്ങനെയാണോ ആ അപ്പ ഞാൻ എത്ര രൂപയും കൂടെ ഈ ടിക്കറ്റിൻ്റെ എത്ര എത്ര ശതമാനം കൂടെ കൂടുതലായിട്ട് തരേണ്ടി വരും ഓക്കെ ഓക്കെ മാം എന്നാൽ ആ എന്നാൽ ശരി കേട്ടോ എന്നാൽ ശരി ഞാൻ ആ പേയ്മെൻറ് ഞാൻ അടച്ചേക്കാം ആദ്യം ഞാൻ ആപൈസ അടച്ച മെതേഡിൽ കൂടെ തന്നെ ആ പേമെൻറും കൂടെ അടച്ചേക്കാം കേട്ടോ ഓക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റ് ബാംഗ്ലൂറിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റിന് ഒരു ടിക്കറ്റൊന്ന് റിസർവ് ചെയ്തേ ഞാൻ ഓൾറെഡി ഇപ്പം എയർപോട്ടിൽ ഉണ്ട്